ഹലോ ഇത് കാന്താരി റസ്റ്റോറൻ്റല്ലേ ഞാൻ വിളിച്ചത് നിങ്ങടെ ഇച്ചിരെ ഭക്ഷണമാവശ്യമുണ്ടായിരുന്നു അതെപ്പറ്റി ഒന്നു സംസാരിക്കുന്നതിനാണ് നമുക്കിപ്പോള് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഭക്ഷണമേതാണ് ഉച്ച ഭക്ഷണ സമയത്തേക്കാണ് ഞങ്ങള്ക്ക് നാലു പേർക്കാവശ്യമുള്ള ഭക്ഷണം ഉച്ചഭക്ഷണമായിട്ട് ഉദ്ദേശിക്കുന്നൂ ഇതിലേതാ നല്ലത് ഫ്രൈഡ് റൈസാണോ റൈസും അതില് സൈഡ് കറികളൊക്കെയെന്താണ്

ബട്ടർ ചിക്കൻ

അപ്പോള് നാലു പേർക്ക് ആവശ്യമായ രീതിയിലുള്ള ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും അതുപോലെ പനീറും നമുക്കാവശ്യമുണ്ട്

അതു നമുക്ക് ഇപ്പോള് ഉച്ചയ്ക്ക് ലഭിക്കുന്നതിനാണ് എത്രമണിക്കെത്തിക്കും നിങ്ങള് പന്ത്രണ്ടര ഓക്കെ എന്നാല് നാലു പേർക്കുള്ളത് കേട്ടാ